ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീക്കുള്ള കടമ തന്നെ ചുമതല തന്നെ പുരുഷനുമുണ്ട് അപ്പോൾ പുരുഷനും സ്ത്രീയും ഈക്വലായിട്ട് വേണം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ട് പോകാൻ പുരുഷനുള്ള ചുമതല തന്നെ സ്ത്രീയും ഏറ്റെടുക്കണം പണ്ടത്തെ കാലത്തെ പുരുഷന്മാർ പുറത്ത് ജോലി തേടിപ്പോകും സ്ത്രീകൾ വീട്ട് കാര്യം ചെയ്യും പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ത്രീയും ഇന്നത്തെ കാലത്തെ ചിലവ് ഒരുപാടുണ്ട് അപ്പോൾ സ്ത്രീയും ജോലിക്ക് പോകുമ്പോൾ പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെ ചുമതല ഏൽക്കണം അതുപോലെ തന്നെ വീട്ടിലുള്ള ജോലികൾ തറ വൃത്തിയാക്കൽ കുറെ ജോലികൾ വീട്ടിലുണ്ട് പാചകം തറ വൃത്തിയാക്കൽ ക്ലീനിങ്ങ് അപ്പോൾ എല്ലാം പുരുഷനും സ്ത്രീയും ഒരേ പോലെ ചുമതല ഏറ്റ് ചെയ്യണം സ്ത്രീക്കും പുരുഷനും എങ്ങനെയാണ് ജോലി പങ്കുവെയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവരു അവിടെ തന്നെ ഒരു ടൈം ടേബിൾ വെക്കണം ഞാൻ തിങ്കളാഴ്ച്ച ഇങ്ങനെ ഓ ഒരാൾ ക്ലീനിങ്ങ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച്ച ആ ക്ലീനിങ്ങ് പുരുഷൻ അതുപോലെ തന്നെ പാചകം അത് ഓരോ ജോലിയും ഈക്വൽ പാർട്ണർഷിപ്പിൽ വേണം ചെയ്യാൻ അപ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീക്ക് പെട്ടന്ന് ആ വീട്ടിൽ ഉള്ള ജോലി ഒതുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യലി സ്ത്രീയും പുരുഷനും ഈക്വൽ ആയിട്ട് വേണം അപ്പോൾ ഇപ്പം എല്ലായിടത്തും സ്ത്രീക്ക് എല്ലാ മുൻഗണയും നൽകുന്നുണ്ട് പക്ഷേ പുരുഷ മേധാവിത്വം പണ്ടക്കെയുണ്ടായിരുന്നു പുരുഷന് കഴിഞ്ഞിട്ടേ സ്ത്രീക്ക് എന്തും കിട്ടി കൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ അല്ല മുമ്പത്തെക്കാലത്ത് ഭക്ഷണം പോലും കഴിക്കണമെങ്കിൽ പുരുഷന്മാർക്ക് ആദ്യം വിളമ്പണം സ്ത്രീകൾക്ക് അവസാനം അങ്ങനെ ഉണ്ടായ ഒരു കാലഘട്ടം ആയിരുന്നു പണ്ട് പുരുഷൻ കഴിച്ച ശേഷം ആ ബാക്കി വരുന്ന ചോറാണ് സ്ത്രീ കഴിച്ചോണ്ടായത് എൻ്റെ അമ്മേടെ കാലഘട്ടത്തിക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കുറെ കാലങ്ങൾ മാറി ഇപ്പോൾ ഈക്വലായിട്ട് പുരുഷൻ എന്ത് ഇതാക്കുന്നുണ്ടോ അതിൻ്റെ ഈക്വൽ ഷെയർ സ്ത്രീക്ക് അപ്പോൾ വസ്ത്ര ധാരണത്തിലും സ്ത്രീക്കും പുരുഷനും നല്ലോണം വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ടൊക്കെ സ്ത്രീ വീട്ടിൽ സാരി തന്നെ ഉടുക്കണം എന്നൊരു നിയമമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സ്ത്രീക്ക് ഒരു ചങ്ങലയിൽ പിരിച്ച ഒരു പണ്ടത്തെ കാലത്തിലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ അല്ല ഇപ്പോഴത്തെ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പം സ്ത്രീകൾ സംസാരിക്കാൻ പഠിച്ചു അറിവ് നേടി അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ അതേ തുല്യതയിൽ സ്ത്രീയുണ്ട് സ്ത്രീ പുരുഷനെക്കാളും വിദ്യാഭ്യാസം ഇപ്പോൾ സ്ത്രീകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വീടാവട്ടെ എന്ത് കാര്യമാകട്ടെ ആ ആ ചുമതല സ്ത്രീയും ഏറ്റെടുക്കുന്നു അത് അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യവും ആ ഭർത്താവും ഭാര്യയും രണ്ട് പേരും കുട്ടികളുടെ ഈക്വൽ റെസ്പോൺസിബിലിറ്റി എടുക്കണം അവരുടെ ഓരോ ഒരു കാര്യങ്ങളും ഭർത്താവും ഭാര്യയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ ചുമതലയും സ്ത്രീക്ക് മാത്രം ഏൽക്കാനും പറ്റൂല്ല പുരുഷനും മാത്രായിട്ടും ഈക്വലായിട്ട് രണ്ട് പേരും ഒരേ പോലെ ചെയ്യുമ്പോളാണ് ആ വീട് സ്വർഗ്ഗമാവുന്നത് ചുമതലകൾ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ആ പണ്ടത്തെ കാലത്ത് ചുമതലാന്ന് വെച്ചാൽ പുരുഷന് മാത്രം ആയിരുന്നു ചുമതല ഉണ്ടായിരുന്നത് പുരുഷന് പുറത്ത് ജോലിക്ക് പോയിട്ട് അവന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അതൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ആ വീട് മുന്നോട്ട് പോകണം അതിലെ പുരുഷന് ജോലിക്ക് പൈസ കുറവായിരിക്കും അപ്പം പുരുഷന് ഒരുപാട് ബുദ്ധിമുട്ട് പക്ഷേ അന്ന് ചിലവ് കുറവായിരുന്നു വീട്ടിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ സ്ത്രീ ആ സമയത്ത് വീട്ടിലുള്ള ജോലിയിലായിരുന്നു തൽപ്പര്യമായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴങ്ങനെ അല്ല ഇപ്പോൾ സ്ത്രീകൾ കൂടി മെച്ചപ്പെട്ടു ഇപ്പം സ്ത്രീ പുറത്ത് ഉദ്യോഗത്തിന് പോവുകയും പുരുഷന്മാർ അതേപോലെ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പുരുഷൻ്റെ സപ്പോർട്ടില്ലാതെ സ്ത്രീക്ക് മുന്നോട്ട് പോവാനെ സാധിക്കില്ല അപ്പം ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ട് അത് ഏതൊരു സ്ത്രീയുടേം ശക്തിയാണ് അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ സപ്പോർട്ട് പുരുഷൻ്റെയും അപ്പോൾ രണ്ട് പേരും ഈക്വലായിറ്റ് ഒരു കുടുംബത്തിന് മുന്നോട്ട് കൊണ്ട് പോകണം അങ്ങനെ കൊണ്ട് പോകുന്ന കുടുംബം നല്ല സ്വർഗ്ഗ തുല്യമായ കുടുംബമായിരിക്കും അപ്പോൾ ആ വീട്ടിൽ വളർന്ന് വരുന്ന മക്കൾ ഇതു കണ്ട് അവരുടെ തലമുറ അവരുടെ തലമുറയിൽ കുട്ടികളും ഇതുപോലെ നന്നായി വളരും അപ്പോൾ സ്ത്രീയും പുരുഷനും ചുമതലകൾ എടുത്ത് അവരവരുടെ ഇത് എന്താ പറയാ അവരവരുടെ ചുമതലകൾ നന്നായി ചെയ്ത് ഒരു കുടുംബത്തിന് സ്വർഗ്ഗ തുല്യമാക്കുക